ദീര്ഘ ദൂര ബൈക്ക് യാത്രകള് എന്നു പറയുമ്പോൾ ഒരു വളരെ നല്ലൊരു അനുഭവം തന്നെയാണ് പക്ഷെ അതില് ചില കാര്യങ്ങള് ശ്രദ്ധിച്ചിട്ടില്ലെങ്കില് ആരോഗ്യമായും പല പ്രശ്നങ്ങളും വരാന് ചാന്സുണ്ട് അപ്പോൾ അതിൽ ആദ്യമായിട്ടു പറയുന്നത് വണ്ടിയുടെ സ്ഥിതി അനുസരിച്ചിരിക്കും വണ്ടി വളരെ മോശം സ്ഥിതിയിലാണെങ്കില് നമുക്ക് അധികം ബുദ്ധിമുട്ടിയിട്ട് ഓടിക്കേണ്ടി വരും അപ്പോൾ അതു മൂലം നമുക്ക് ശാരീരമാസകലം വേദനയോ പെട്ടെന്ന് തളരുകയോ ചെയ്യാം അപ്പോൾ അത് ആരോഗ്യത്തെ ബാധിക്കാന് ചാന്സുണ്ട് പിന്നെ അതല്ലാതെ പറയുവാണേല് നമ്മൾ ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ അതിനു പറ്റിയുള്ള സംഭവങ്ങള് ധരിക്കണം ഇപ്പോൾ ഹെല്മറ്റ് ആകട്ടെ ഗ്ലൗസ് ആകട്ടെ ഇതൊക്കെ നമ്മൾ ആക്സിഡൻറ്റ് അഥവാ ഒന്നു വീഴുകയോ വല്ലതും നടക്കുവാണേല് അതില് നിന്നും നമ്മളെ രക്ഷിക്കാന് പറ്റും പിന്നെ പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ സ്ഥിതി അനുസരിച്ചിരിക്കും ഇപ്പം നമ്മൾ ഡെയിലി ദിവസവും നമ്മൾ വ്യായാമം വല്ലതും ചെയ്യുവാണെങ്കിൽ നമുക്ക് അധികം നേരം തളരാതെ ഓടിക്കാന് പറ്റും നമ്മുടെ കാ കാലുകള് കടയാതെയും നടുവ് വേദനിക്കാതെയും നമ്മള്ക്ക് കുറേ ദൂരം നമമുടെ ശരീരം ഫിറ്റാണേൽ നമുക്ക് ഓടിക്കാന് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ആരോഗ്യപരം നിര്ത്താനുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ഭക്ഷണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് ഭക്ഷണം ആവശ്യത്തിനുള്ളത് കഴിക്കുന്നതാണ് നല്ലത് അധികം കഴിച്ചാല് നമുക്കത് വളരെ തെറ്റായ രീതിയില് നമ്മളെ ബാധിക്കാന് ചാന്സുണ്ട് അപ്പം നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കണം ആവശ്യത്തിനു അധി ആവശ്യത്തിലത്ര കഴിച്ചാല് നമുക്ക് വയറ്റിന് കുഴപ്പമോ അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ ഞാന് കഴിക്കാന് ആഗ്രഹിക്കുന്നത് വല്ല ചപ്പാത്തിയോ അങ്ങ അല്ലെങ്കില് വല്ല പഴങ്ങളോ ആണ് പിന്നെ ഭക്ഷണത്തില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എപ്പോഴും നമ്മൾ വെള്ളം കുടിച്ചോണ്ടിരിക്കണത് നല്ലതായിരിക്കും നമ്മള് ടയര് വയ്യാണ്ടാകുമ്പോളോ ചെറുതായിട്ടൊന്ന് നിര്ത്താന് തോന്നുമ്പോഴോ വെള്ളം എപ്പോഴും കുടിച്ചു കൊണ്ടിരിക്കുന്നത് ദീര്ഘ ദൂരം യാത്രകളിൽ നമ്മളെ സഹായിക്കാറുണ്ട് പിന്നെ ബൈക്ക് ഓടിക്കുമ്പോള് നടുവേദന തോളുവേദന തുടങ്ങിയവ അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നു ചോദിച്ചാല് അധിക ദൂരം നിര്ത്താണ്ട് ഓടിക്കുമ്പോൾ തോളുവേദനയും നടുവേദനയുമൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതു മാറ്റാനായി ഞാന് ചെയ്യുക എന്നത് ചെറുതായിട്ടു തന്നെ തോളുവേദന എങ്ങാനും അനുഭവപ്പെട്ടു തുടങ്ങിയാൽ ഞാനൊന്നു നിര്ത്തി കുറച്ചു നേരം വിശ്രമിച്ചിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് പിന്നെയും ഓടിച്ച് തുടങ്ങും പിന്നെ റോഡിന്റെ സ്ഥിതി അനുസരിച്ച് സ്ഥിതി അനുസരിച്ചും ഇരിക്കും ഈ വേദനകൾ ഇപ്പോൾ ഒരുപാട് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡൊക്കെ ആണെങ്കില് പെട്ടെന്നു ത ന്നെ തോളുവേദനയും നടുവേദനയൊക്കെ വന്നു തുടങ്ങാം അപ്പോൾ അതൊക്കെയൊന്നു ശ്രദ്ധിച്ച് പയ്യെ ഓടിച്ച് കുറച്ച് നേരം നിർത്തി നിർത്തി പോയാല് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറ്റാവുന്നത്രയും ഒഴിവാക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്